ഹലോ ഞാൻ ഓൺലൈനിൽ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ച്ചയായി ഒരാഴ്ച്ചയിൽ കൂടുതലായി ഇത് ഇതുവരെ അതിൻ്റെ പ്രോസസ്സ് എനിക്കിതുവരെ ഗ്യാസ് കിട്ടിയിട്ടില്ല എൻ്റെ ബുക്കിംഗ് നമ്പറ് അഞ്ച് ആറ് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം പൂജ്യം പൂജ്യം എട്ട് നാല് മൂന്ന് രണ്ട് ഒന്നാണ് എൻ്റെ ആധാർ നമ്പറിൻ്റെ അവസാനത്തെ അക്കം പൂജ്യം പൂജ്യം ഒമ്പത് എട്ട് ആണ് എനിക്കെത്രയും പെട്ടെന്ന് അതൊന്ന് പ്രോസസ്സ് ചെയ്തു തരണം കേട്ടോ എത്ര ദിവസമായി ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞയാഴ്ച്ച ബുക്ക് ചെയ്തതാണ് ഞാനിപ്പോൾ അടുത്ത വീട്ടിലെ ഗ്യാസാണ് വാങ്ങിയാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇത്രയും താമസിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പിന്നെ എൻ്റെ മൊബൈൽ നമ്പറ് ഞാൻ എട്ട് ഏഴ് പൂജ്യം അഞ്ച് നാല് ഒമ്പത് മൂന്ന് ആറ് ഒന്ന് രണ്ടാണ് കൊടുത്തിരുന്നത് ആ നമ്പറ് എനിക്കിപ്പം ഇവിടെ റേഞ്ച് കിട്ടാത്തതുകൊണ്ട് എനിക്ക് അതിലിപ്പം ഗ്യാസ് ബുക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് ആ നമ്പറ് മാറ്റി ഒമ്പത് ഏഴ് ഒന്ന് ആറ് മൂന്ന് രണ്ട് അഞ്ച് മൂന്ന് നാല് ഒമ്പത് വേണമെങ്കിൽ ഞാൻ നമ്പര് ഒന്നുകൂടി പറയാം ഒമ്പത് ഏഴ് ഒന്ന് ആറ് മൂന്ന് രണ്ട് അഞ്ച് മൂന്ന് നാല് ഒമ്പത് ഈ നമ്പറാക്കി എനിക്കൊന്ന് അപ്ഡേറ്റ് ചെയ്തു തരണം അതൊന്ന് പെട്ടെന്ന് ചെയ്തുതരണം കാരണം പഴയ നമ്പറിൽ എനിക്കിപ്പം റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഗ്യാസ് ബുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ആദ്യത്തെ നമ്പറിൽ തന്നെയാണ് ഞാനിപ്പോൾ നിലവിൽ ഗ്യാസ് ബുക്ക് ചെയ്തിരിക്കുന്നത് അത് ഞാൻ വേറൊരു സ്ഥലത്തോട്ട് മാറിനിന്ന് ബുക്ക് ചെയ്തതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഡിലെ ആക്കുന്നത് മുമ്പാണെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്താൽ രണ്ടു ദിവസത്തിനുള്ളിൽ ഗ്യാസ് എത്തിക്കുന്നതാണല്ലോ ഇതിപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ് എനിക്ക് ഗ്യാസ് ഇല്ലാതെ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല രാവിലെ എനിക്ക് ഗ്യാസിലാണ് ഞാൻ കുക്കിങ്ങൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്കത് ഗ്യാസ് ഇല്ലാതെ എൻ്റെ ഒരു കാര്യവും നടക്കില്ല എനിക്ക് വിറക് അടുപ്പൊന്നും ഇല്ല അപ്പം ഞാൻ എല്ലാം ചെയ്യുന്നത് ഗ്യാസിലാണ് അടുത്ത ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് എന്തായാലും പുള്ളിക്കാരിക്ക് എനിക്ക് തിരിച്ചു കൊടുക്കണ്ടേ ഇതെത്ര ദിവസമായി അതെത്രയും പെട്ടെന്ന് എനിക്ക് ചെയ്തുതരണേ ഗ്യാസിൻ്റെ ബുക്കിങ്ങിൻ്റെ ബുക്കിങ്ങ് നമ്പർ ഒന്നുകൂടി പറഞ്ഞുതരാം ഗ്യാസിൻ്റെ നമ്പറ് അഞ്ച് ആറ് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം പൂജ്യം പൂജ്യം എട്ട് നാല് മൂന്ന് രണ്ട് ഒന്ന് ആധാറിൻ്റെ നമ്പറ് അവസാനത്തെ നമ്പറ് പൂജ്യം പൂജ്യം ഒമ്പത് എട്ട് ആണ്